പനി ആയിരുന്നു അല്ലേ വേറെ എന്തെങ്കിലും അസ്വസ്ഥത ഉണ്ടോ തലവേദന അല്ലെ ജലദോഷം അങ്ങനെ എന്തെങ്കിലും തൊണ്ടവേദന അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ തൊണ്ടവേദന ഉണ്ട് അല്ലേ മഴ എന്തെങ്കിലും നനഞ്ഞായിരുന്നോ മഴ എന്തെങ്കിലും നനഞ്ഞിരുന്നോ ആ ഇന്നലെ ആണോ രണ്ടുദിവസമായല്ലേ എപ്പോൾ എപ്പോഴാണ് തുടങ്ങിയത് ഇത് പനിയും തലവേദനയും ആ ഓക്കെ അപ്പോൾ എന്തെങ്കിലും മരുന്ന് എന്തെങ്കിലും കഴിച്ചായിരുന്നോ പാരസെറ്റമോൾ അങ്ങനെ എന്തെങ്കിലും കഴിച്ചിരുന്നോ ഓകെ കഴിച്ചില്ല അല്ലേ അപ്പോൾ ഭക്ഷണത്തിന് ശേഷം മൂന്ന് നേരം ഓരോ പാരസെറ്റമോൾ കഴിക്കുക കഴിച്ചിട്ട് കുറവുണ്ടോ എന്ന് നോക്ക നിങ്ങൾ ഒരു ദിവസം കഴിച്ചാൽ മതി കഴിച്ചിട്ട് കുറവുണ്ടോ എന്ന് നോക്ക കുറവുണ്ടങ്കിൽ കുഴപ്പമില്ലായിരിക്കും അല്ലങ്കിൽ നിങ്ങൾ ഹോസ്പിറ്റലിൽ വരെ വരേണ്ടി വരും അപ്പോൾ ബ്ലഡ് ടെസ്റ്റും യൂറിൻ ടെസ്റ്റും ഒന്ന് ചെയ്യേണ്ടി വരും ഇത് ഇപ്പോൾ എവിടെ ആണ് സ്ഥലം എവിടെ ആണ് മാനന്തവാടി തന്നെ ആണ് ഓക്കേ ഓക്കേ

വരാൻ ബുദ്ധിമുട്ട് ഒന്നും ഉണ്ടാവില്ലല്ലോ ആ ഓക്കെ അപ്പോൾ ഒന്ന് വന്നാൽ മതി കേട്ടോ പിന്നെ വേറെ എന്തെങ്കിലും അസ്വസ്ഥത അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ ഉള്ളല്ലേ ഇപ്പോൾ എന്തായാലും വൈകുന്നേരം ഫുഡ് കഴിച്ചിട്ടേ ഗുളിക കഴിക്കാവുള്ളൂ ആ പിന്നെ പാരസെറ്റമോൾ ഉണ്ടാകും അല്ലേ കയ്യിൽ പാരസെറ്റമോൾ കയ്യിൽ ഉണ്ടാകുംല്ലോ അല്ലേ ഉണ്ടാകും അല്ലേ ഓക്കെ അപ്പോൾ ഒന്ന് നോക്കിട്ട് വിളിച്ചാൽ മതി എന്തെങ്കിലും ബുദ്ധിമുട്ട് ഉണ്ടെങ്കിൽ ഹോസ്പിറ്റൽ വരെ ഒന്ന് വരണം ആ പിന്നെ തലവേദനയും പനിയും അല്ലേ ഇത് വൈറൽ ഫിവർ അവൻ ആണ് ചാൻസ് മഴ നനഞ്ഞിട്ട് ഉണ്ടായിരുന്നല്ലോ അപ്പോൾ പാരസെറ്റമോൾ കഴിച്ച കുറയാൻ ഉള്ള ഉണ്ടാകുള്ളു അതിന് വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ട് ഉണ്ടെങ്കിൽ കുറയുന്നില്ല എന്ന് ഉണ്ടെങ്കിൽ ഹോസ്പിറ്റൽ വരെ ഒന്ന് വരണം ഓക്കേ അല്ലേ എന്തായാലും ഒന്ന് നോക്കിട്ട് വന്നാൽ മതി